ആ ചേച്ചി ഞാനിന്നലെ ഒരു ഡ്രസ്സ് തയ്ക്കാൻ കൊണ്ടുവന്ന് അവിടെ കൊടുത്തിട്ടുയിണ്ടാരുന്നു ചേച്ചിയുടെ കടയിൽ അപ്പോൾ ചേച്ചി അവിടെ ഇല്ലായിരുന്നു ആ ആ അതെയതെയതെ പിന്നെ അതിൻ്റെ കൂടെ ലൈനിങ് വെച്ചിട്ടില്ലാരുന്നു മറ്റേ ആ അതൊന്ന് എടുക്കുവോ ആ മതി മതി മറ്റേ ഇതായിട്ട് അംബ്രല്ല കട്ട് വേണേ ആ ആ ഇറക്കം ഒരിച്ചിരി കൂടെ വെച്ചോ അത് ആ ഒരിച്ചിരി കൂടെ വെച്ചോ ത്രീ ഫോർത്ത് വെച്ചേരെ ആ അതോ പഫ് ആണോ ഇച്ചിരി കൂടെ നല്ലത് എനിക്ക് സൺഡേ തരാൻ പറ്റുമോ

വൈകിട്ടത്തേക്ക് ആ വൈകിട്ടത്തേക്ക് മതി അടുത്തദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ അതാണ് ആ മിറർ വർക്ക് മറ്റേ ചെയ്തേര് കൈയുടെ അവിടെയും വി നെക്ക് വെച്ചാൽ മതിയേ അപ്പോൾ അവിടെയൊക്കെ

ആ സിബ്ബ് വേണ്ട പുറകിൽ വള്ളി വയ്ക്കുമല്ലോ ആ അങ്ങനെ ചെയ്താൽ മതി അയ്യോ നേരത്തെ അഞ്ഞൂറ്റമ്പത് അത്രയൊക്കെയേ ഉള്ളായിരുന്നല്ലോ ആണോ ആ ഞാനിപ്പോൾ തന്നിട്ട് ഒത്തിരി നാളായല്ലോ അല്ലേ ആ ആ മറ്റേ അപ്പുറത്തെ വീട്ടിലെ ആ ചേച്ചി തയ്ച്ചപ്പോൾ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് ഒക്കെയുള്ളൂ പക്ഷേ അത് വേറെ ഇടത്താണേ തയ്ച്ചതേ

ആ ആ ആ അതുകൊണ്ടാണല്ലേ അയ്യോ ആ ആ ആ അപ്പം ചേച്ചി ലൈനിങ്ങിൻ്റെ കൂടെ പൈസ എത്രയാണെന്നുവെച്ചാൽ പറയണേ അപ്പോൾ ഒന്നിച്ചു ഒന്നുകിൽ ഗൂഗിൾ പേ ചെയ്യാം അല്ലെങ്കിൽ കൊണ്ടുവരാം ആ ആ ആ പഴയ അളവിൽ നിന്ന് ഒരിച്ചിരി കൂടെ ഇത് ലൂസ് ഇട്ട് തയ്ച്ചോ ഏ ഇപ്പോൾ ഒത്തിരി ആയില്ലേ തന്നിട്ട് ഞാൻ ഞാൻ തന്നെ വരാം എന്താണെന്നറിയാമോ അപ്പോൾ ഒന്ന് ഇട്ടുനോക്കുമ്പോൾ അറിയാമല്ലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലേ അപ്പോൾ അവിടെവെച്ചുതന്നെ ശരിയാക്കി കൊണ്ടുപോകാമല്ലോ അല്ലെങ്കിൽ പിന്നെ കൊണ്ടുവന്നു ഇതൊക്കെ അത്രയും ദൂരമായതുകൊണ്ടേ പാടല്ലേ അപ്പം ഞാൻ ആ ആ അപ്പം എന്നാൽ ഞാൻ രാവിലെ വിളിച്ചിട്ട് പൈസയുടെ കാര്യവും കൂടെ പറഞ്ഞിട്ട് ഞാൻ വരാം ആ ആ എന്നാൽ ശരി ചേച്ചി